എൻ്റെ രചനാപ്രക്രിയ ഗൗരവപൂർവമായ രീതിയിലാണ് ആസൂത്രണം ചെയ്യുന്നത് ഓരോ രചനയ്ക്കും മുമ്പായി ഞാൻ വിശദമായ ഓരോ രൂപരേഖ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ വിഷയത്തിൻ്റെ മുഖ്യ പിന്തുണകളും ഉപവിഷയങ്ങളും ചർച്ച ചെയ്യേണ്ട പ്രധാന തലങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു രൂപരേഖ ഒരു റോഡ് മാപ്പ് പോലെയാണ് എവിടേയ്ക്കാണ് പോകേണ്ടതെന്നാണ് നമ്മുടെ ഉറച്ച ധാരണയുണ്ടാകുന്നത് ഒന്നാമതായി ഒരു രൂപരേഖ തയ്യാറാക്കുകയാണ് വേണ്ടത് ഈ ഘട്ടത്തിൽ ഞാൻ വിഷയത്തെക്കുറിച്ച് ആഴത്തില് ആലോചിക്കുകയും അതുപോലെ തന്നെ അതിലുള്ള പ്രധാന ആശയങ്ങൾ ഉദാഹരണങ്ങൾ തൊടുത്തുപിടിക്കേണ്ട വാചകങ്ങൾ പര്യായങ്ങൾ എന്നിവയെല്ലാത്തിനെയും കുറിച്ച് സങ്കല്പ്പിക്കുന്നു ചിലപ്പോൾ ഈ ഘട്ടം തന്നെ കുറച്ച് ദിവസങ്ങളെടുക്കാം കുറിപ്പുകൾ റെഫറൻസുകൾ ആശയ നിബന്ധനങ്ങൾ തുടങ്ങിയവ ഇവിടെ ഉൾപ്പെടുന്നുണ്ട് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡ്രാഫ്റ്റ് എഴുതുകയാണ് അഥവാ രൂപരേഖയ്ക്ക് പിന്നാലെ ഞാൻ ആദ്യം ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു ഇവിടെ ഞാൻ ഭാഷയിലും ഘടനയിലും കുറച്ചു വൈകാരികമായി തന്നെ എഴുതുന്നുണ്ട് അഥവാ ആശയങ്ങളുടെ ഒഴുക്ക് നിലനിർത്താനാണ് പ്രധാന ശ്രദ്ധയുള്ളത് കുറച്ച് അപാകതകള് ഉണ്ടാവുകയും ചില വാക്യങ്ങൾ പൊളിഞ്ഞിരിക്കുകയും ഉണ്ടാകാം പക്ഷെ എഴുത്ത് തുടരുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മൂന്നാമതായിട്ട് പുനർപരിശോധനയും പരിഷ്കരണവുമാണ് അഥവാ ഇതെൻ്റെ പ്രിയപ്പെട്ട ഘട്ടമാണ് ഇവിടെ ഞാൻ എൻ്റെ എഴുത്ത് പുനർവായിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടുമൊരിക്കൽ ചിന്തിക്കുന്നു അഥവാ ഒരു വായനക്കാരൻ എന്ത് പ്രതീക്ഷിക്കുമെന്ന് വാക്യക്രമം കൊണ്ടോ അല്ലെങ്കിൽ വാചകഘടന കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സൗന്ദര്യം എന്നിവ മെച്ചപ്പെടുത്തുന്നുണ്ട് ചില തവണ ആദ്യ ഡ്രാഫ്റ്റ് രണ്ടിലും മൂന്നിലുമൊക്കെ തിരുത്തേണ്ടിവരും ചില തവണ ഒമ്പത് പത്ത് പട്ടിക വരെ തയ്യാറാക്കേണ്ടിവരും പ്രത്യേകിച്ച് ഏറെ ഗൗരവമുള്ള രചനയാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമായിരിക്കും നാലാമതായി അഭിപ്രായം സ്വീകരിക്കലാണ് അഥവാ എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ഉപദേശങ്ങളും നിരൂപകരുടെ സമീക്ഷകളും അഭിപ്രായങ്ങളും ഞാൻ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ആത്മാർത്ഥരായ സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും വിമർശനങ്ങളും വളരെ ഉപകാരപ്പെടാറുണ്ട് ചിലപ്പോള് ഒരാള് പറഞ്ഞ ചെറിയ ഒരു കുറിപ്പ് വലിയൊരു മാറ്റം വരെ നമ്മുടെ കൃതിയിൽ വരുത്താറുണ്ട് അഞ്ചാമതായി അംഗീകാരം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയെന്നുള്ളതാണ് അഥവാ എനിക്കേറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് എൻ്റെ പ്രതീക്ഷ വായനകളുടെ അംഗീകാരമാണ് അഥവാ വായനക്കാരുടെ അംഗീകാരമാണെന്നുള്ളതാണ് അഥവാ ഒരു വിദ്യാർഥി അല്ലെങ്കിൽ ഒരു പാഠകൻ ഒരു അദ്ധ്യാപകൻ ഓരോരാൾ എൻ്റെ രചന വായിച്ച് ഇതെൻ്റെ ഹൃദയത്തിൽ തൊട്ടുവെന്ന് പറഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരമെന്നുള്ളത് അഥവാ ശബ്ദമില്ലാത്ത ആ ഒരു സ്വീകാര്യത അതാണ് ഏറ്റവും വലുത് എഴുത്തിൽ പ്രേരണ നൽകുന്ന ഒരു ഉപഭോക്താക്കളെന്ന് പറഞ്ഞാൽ നിത്യ പ്രേരണയായി എനിക്ക് മഹാകവികളായ വി യു കൃഷ്ണൻ ഒ എന് വി അക്കിത്തം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഒ വി വിജയന് തുടങ്ങിയവരുടെ രചനകളും സമകാലിക രേഖകളുടെയും അദ്ധ്യാപകരുടെയും ശൈലികളും വിവേകങ്ങളുമാണ് അതുപോലെ ആത്മാവിൽ ഒരു പ്രകാശം വെയ്ക്കുന്ന നാടകങ്ങൾ സിനിമാ സംഭാഷണങ്ങൾ കൃതികളിലെ സംഭാഷണങ്ങൾ ഇവയും എനിക്ക് ദിശാബോധം നൽകാറുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ എഴുത്ത് എൻ്റെ ആത്മാവിൻ്റെ സംഭാഷണമാണ് ഓരോ എഴുത്തും ഓരോ യാത്രയാണെന്ന സത്യത്തോടുകൂടിയാണ് ഞാൻ എഴുതാന് തുടങ്ങുന്നത് ആ യാത്ര എത്രയും അഴകായി പൂർത്തിയാക്കാൻ ഞാൻ എല്ലാ ശ്രദ്ധയും ഉപയോഗിക്കുന്നുണ്ട്